ഹലോ ആരാണ്

എന്താണ് ആ എന്തുപറ്റി

ആവി പിടിച്ചായിരുന്നോ

ആ ഗുളിക കുടിച്ചിട്ട് കുറയുന്നില്ലല്ലേ ആവി പിടിച്ചും നോക്കി നല്ലോണം ആ തല തല നനക്കണ്ടേ രണ്ട് ദിവസത്തേക്ക് അങ്ങനെ കുറഞ്ഞോളും എന്തെങ്കിലും മെഡിസിനെന്തേലും എടുത്തായിരുന്നോ ആ ആ മുമ്പ് ഡോക്റ്ററെ എവിടേലും കാണിച്ചിരുന്നോ ആ ആ ഏത് ഡോക്ടറെയാണ് കാണിച്ചത് ആണോ പാരസിറ്റമോളാണോ അവര് തന്നത് അതില് കുറവില്ലാലെ ആ ആ എവിടെയാണ് സ്ഥലമെന്ന് പറഞ്ഞത് ഞാൻ കോഴിക്കോട് തന്നെയാണ് കോഴിക്കോടാണ് ആ കുറവില്ലെങ്കിലെ നമുക്ക് നോക്കാട്ടോ ആദ്യം നല്ല ഒന്ന് ചൂടു വെള്ളത്തില് നല്ല ആവി പിടിച്ചാണ്ടി ട്ടാ ആ നല്ല ഉ ആ കാണാൻ പറ്റും ബുക്കെയ്യണ്ടാ നേരെ വന്നാൽ മതി കോഴിക്കോടാണ് കോഴിക്കോട് ബാലുശ്ശേരിന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഈ നമ്പറില് കോളെയ്താൽ മതി കെട്ടോ ആ പിന്നേയ് ആ ആ നാളെ വരാൻവേണ്ടി ട്ടോ എന്നാൽ ഈ നമ്പറില് വിളിച്ചാൽ മതി കേട്ടോ ആദ്യം തന്നെ ഒന്ന് നല്ലോണം ആവി പിടിക്ക് പരസിറ്റാമോളുണ്ടോ വീട്ടില് ആ പാരസെറ്റാമോളൊന്ന് കഴിച്ച് നോക്ക് ആ ഒരാൾക്ക് ആ ഒരാൾക്ക് വന്നാൽ തന്നെ അതില് അത് എല്ലാർക്കും തന്നെ ബാദ് ബാധിക്കയാണ് ഇപ്പോൾ ഒരു വയറൽ ഫീവറാണുള്ളത് ആ അതുകൊണ്ടായിരിക്കും കേട്ടോ ആ പിന്നെ വേറെന്തേലും ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോ

ആ ആ നല്ലോണമൊന്ന് ആവി പിടിച്ചോക്കി അപ്പോൾ തന്നെ കുറെ മാറ്റം വരും കേട്ടോ ഒരു പാരസെറ്റാമോളും കഴിച്ചോളിട്ടോ എന്ത എന്തേം ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ ഓക്കെ പേര് മുബഷിറ ഓക്കെ എന്നാൽ ഓക്കെട്ടോ